നെക്സ്റ്റ് വീക്ക് ആണോ ആ ആ ഇപ്പം നമ്മക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ആ നമുക്കിപ്പം കൂടുതലായിട്ടും ട്രക്കിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാടിലുള്ള ഉള്ള യാത്ര ഒക്കെയാണ് അപ്പം അതിന് രണ്ട് സ്ഥലങ്ങൾ ഉണ്ട് മുത്തങ്ങ ഉണ്ട് തോൽപ്പെട്ടി ഉണ്ട് അപ്പം അവിടെ മോർണിംഗ് രാവിലെ ഒരു എട്ടര ഒക്കെ ആവുമ്പത്തേക്കും നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം കാരണം ഇതെല്ലാം കറങ്ങി തീരുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഉച്ച ആ ടൈം ഒക്കെ ആവും പിന്നെ കൂടുതലും ഈ രാവിലെ പോകുന്നതായിരിക്കും കുറച്ചും കൂട ബെറ്റർ കാരണം നമുക്ക് മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കാണണമല്ലോ നിങ്ങൾക്ക് എന്തായാലും

ഇവിടുന്ന് ജീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ സാദാ ജീപ്പ് ഇല്ലേ പിന്നെ അതിനിപ്പം നോർമൽ ജീപ്പ് ഉണ്ട് പിന്ന അല്ലാത്തവർക്ക് ഇപ്പം ആൾക്കാർ കൂടുതൽ ഉണ്ടെങ്കിൽ വലിയ നമ്മുടെ ഈ ഫോഴ്സിൻ്റെ വണ്ടി ഇല്ലേ നമുക്ക് മേലെ ഇങ്ങനെ ഇരുന്നിട്ട് അത് ഹട്ട് പോലെ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളത് ആ ആ ആ അതും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ആൾക്കാർ എത്രയാണോ വരുന്നത് അതിന് അനുസരിച്ച് വണ്ടി അറേഞ്ച് ചെയ്തുതരാം ഇല്ല ഇത് കുഴപ്പം ഒന്നും ഇല്ല ജീപ്പിലേക്ക് ഒന്നും അങ്ങനെ ഒരു കാരണവശാലും കടുവ അങ്ങനെ കയറി ഒന്നും വരില്ല അത് നിങ്ങൾ അതുകൊണ്ട് പേടിക്കേണ്ട ഇപ്പം ആന ആണെങ്കിലും ഈ ഇപ്പം ഇവിടുത്തെ വണ്ടികളൊക്കെ ഏകദേശം ആനയ്ക്കും മൃഗങ്ങൾക്കൊക്കെ പരിചയം ആ എന്നാലും ആ അത് ഉണ്ടാവും അത് പുറമേ വരുന്ന വണ്ടികൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഡെയിലി പോകുന്ന വണ്ടികളാണ് പിന്നെ അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെയാണ് ഞങ്ങൾ വിടുക അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പേടിക്കേണ്ട കാര്യം ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം ആ എന്നാണ് വരുന്നതെന്ന് ഒന്ന് വിളിച്ച് പറയണം എട്ടിന് വരും അല്ലേ ബിൽ ആ അത് അങ്ങനെ ആണെങ്കിൽ വണ്ടിക്ക് അതായത് ജീപ്പ് ഒക്കെ ആണെങ്കിൽ ഒരാൾക്ക് ഇരുനൂറ് രൂപ വെച്ചിട്ട് ഒരാൾക്കിട്ട് അതിൽ ഏഴ് പേരാണ് മാക്സിമം പോവുക ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ എന്നാൽ നിങ്ങൾ വരുമ്പം ഒന്ന് വിളിച്ചാൽ മതി വണ്ടി ബുക്ക് ചെയ്ത് ഇട്ടേക്കാം